ഹലോ ഞാന് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്യാബ് അപ്പം നിങ്ങള് എവിടെയെത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾക്ക് കോള് പോകുന്നില്ല അപ്പോൾ ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുവായിരുന്നു അല്ല നിങ്ങള് കുറേ നേരമായിട്ട് ഞാനിപ്പം എത്രനേരമായി എന്നറിയുമോ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത് ഇപ്പം വരാം ഇപ്പം വരാം എന്നല്ലാണ്ട് കുറേ നേരമായിട്ട് നിങ്ങള് ഇപ്പം വരാം ഇപ്പം വരാം എന്നല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് നാല് വട്ടം വിളിച്ചു നിങ്ങളെ പക്ഷേ നിങ്ങള് നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരുന്നില്ല എൻ്റെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല പക്ഷേ നിങ്ങളുടെയിലേക്ക് കോൾ വരുന്നില്ല നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി എന്നൊന്ന് പറയാമോ ബൈപ്പാസിൻ്റെ അവിടെയാണോ ആ ട്രാഫിക്കിലാണോ അല്ല കുറേ നേരമായിട്ട് നിങ്ങള് നേരത്തെയും ഒരു ട്രാഫിക്കിൽ ആണെന്ന് പറഞ്ഞായിരുന്നു കോഴിക്കോട് ഇപ്പോൾ അതിന് മാത്രം വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും എൻ്റെ അറിവിൽ ഇല്ല ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ട്രാഫിക് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും നിങ്ങൾക്ക് ഒന്നാമത് ക്യാബ് ഡ്രൈവറും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് ചെറിയ വഴികളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിലെ ഒക്കെ വരാമല്ലൊ അല്ല നിങ്ങള് ശരിക്കും ശരിക്കും നിങ്ങൾ ഇപ്പം എവിടെയാണ് ഉള്ളത് ശെരിക്കും പക്ഷെ എത്താറായി എന്ന് നിങ്ങൾ കുറേ നേരമായിട്ട് പറയുന്നു ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഞാനിവിടെത്തന്നെയുണ്ട് ഞാൻ മറ്റേ കെ എസ് ആർ ടി സി ബസ്റ്റാന്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങളൊന്നു പെട്ടെന്ന് വരികയായിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിക്കും ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ നോക്കും എന്നിട്ട് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിച്ച് പോകും പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ പത്ത് മിനിറ്റ് ആ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പോകാം ഓക്കെ